തീർച്ചയായും യുവാക്കൾക്ക് തൊഴിലവസരങ്ങൾ കൊടുക്കേണ്ടത് ഒരു സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒഴിച്ച് കൂടാൻ പറ്റാത്ത ഒരു ഘടകം തന്നെയാണ് അതിന് വേണ്ടി നമുക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അധികം കുട്ടികളും പ്ലസ് ടു കഴിഞ്ഞ് അപ്പോൾ തന്നെ ഒരു പ്രഫഷണൽ എന്നുള്ള നിലയിൽ യു കെ അങ്ങനെയൊക്കെ പുറത്ത് പോയി പഠിക്കുക എന്നുള്ള ഒരു ഇതാണ് കണ്ടു വരുന്നത് അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ ജോബ് ഓറിയെൻ്റെട് എഡ്യൂക്കേഷൻ അതായത് നമ്മൾ പഠിക്കുന്നതിന് കൂടെ തന്നെ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം കുട്ടികൾക്ക് കൊടുക്കുക എന്നതാണ് എന്നുള്ളതാണ് നമുക്ക് അവർക്ക് ഏറ്റവും കൂടുതൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം